നമ്മുടെ കേരളത്തിലെ ആൾക്കാരെല്ലാം ജൈവ കൃഷിയിലേക്ക് മുന്നോട്ട് പോകുകയെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെളിയില് നിന്ന് വരുന്ന കീടനാശിനികള് അടിച്ചതും ഉഗ്രമായ വിഷങ്ങളും കഴിച്ചാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് കാരണം പല രോഗങ്ങളും ഇന്നത്തെക്കാലത്ത് മനുഷ്യനെ പിടികൂടിയിരിക്കുന്ന ഒരു വിപത്തായിട്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് കാരണം ഇന്ന് രോഗമില്ലാത്ത മനുഷ്യരില്ല കാരണം ഇതുപോലെയുള്ള ഭക്ഷണങ്ങളാണ് നമ്മള് കഴിക്കുന്നത് കീടനാശിനികൾ ഏറെ അടിച്ച ഭക്ഷണങ്ങള് നമ്മുടെ ശരീരത്തില് ചെന്ന് പല രോഗങ്ങളും ഇന്നത്തെ തലമുറയിലുള്ള മനുഷ്യർക്ക് ഉണ്ട് കാരണം ഇന്നത്തെക്കാലത്ത് മണ്ണില് പണിയാൻ ആൾക്കാരില്ല ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയെന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഏക ലക്ഷ്യമെന്ന് വന്നു കാരണം എന്നാൽ ജൈവകൃഷി നമ്മുടെ മട്ടുപ്പാവിൽ നടുന്ന ഒരു പച്ചക്കറിയുടെയത്രയും രുചി ഈ കീടനാശിനിയടിച്ച ഒരു പച്ചക്കറിക്കുണ്ടാകില്ല നല്ല നമ്മുടെ മട്ടുപ്പാവിലുണ്ടാകുന്ന പച്ചക്കറികളൊന്ന് കഴിച്ചുനോക്കിയാല് അതിൻ്റെ രുചി വേറെയൊരു ലെവല് തന്നെയാണ് കാരണം നമ്മള് നമ്മള് നട്ടുവളർത്തിയ പച്ചക്കറിക്ക് നമ്മള് തന്നെയാണ് മരുന്നും ജൈവവളങ്ങളും ജൈവ മരുന്നുകളും അടിക്കുന്നത് അങ്ങനെ വരുമ്പോള് നമ്മുടെ ശരീരത്തിനോ മറ്റുമൊരു രോഗങ്ങളോ ഒന്നുമുണ്ടാവുകയില്ല ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് നമ്മള് ജൈവകൃഷി വിജയകരമാക്കുകയെന്നതാണ് എല്ലാവർക്കും അതിനുള്ള വിത്തും സൗകര്യങ്ങളുമെല്ലാം കൊടുത്ത് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക അവർക്ക് സ്ഥലമൊരുക്കിക്കൊടുക്കുക സർക്കാരുകൾ അതിനെ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക നല്ല രീതിയില് വിളവ് നൽകാന് വിളവ് കിട്ടാനുള്ള പോംവഴികൾ അന്വേഷിക്കുക ഒത്തിരി പേരെ ഇതിന് മുന്നോടിയായി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക പുതിയ തലമുറയെ ഇതിനായി വാർത്തെടക്കുക അങ്ങനെ വന്നുകഴിയുമ്പോള് പുതിയ തലമുറയില് പ്പെട്ടവരും ഇത് കണ്ടാണ് പഠിക്കുന്നത് പണ്ടുള്ള തലമുറയിലെ കാരണവന്മാരെല്ലാം കൃഷിയായിട്ടിറങ്ങിയതുകൊണ്ട് അന്നത്തെക്കാലത്ത് പച്ചക്കറികളാണെങ്കിലും എല്ലാം നല്ല നല്ല കീടനാശിനികളൊന്നും അടിക്കാത്ത നല്ല പച്ചക്കറികള് കഴിക്കാനൊക്കെ പറ്റി ഇന്നത്തെക്കാലത്ത് എല്ലാവരും മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ വരാതിരിക്കാൻ നമ്മള് നമ്മള് നല്ല പച്ചക്കറികള് വേണമെന്നുള്ള ഉദേശത്തോടുകൂടി നമ്മുടെ തലമുറ ഇനിയുള്ള തലമുറയും നല്ലതായിട്ട് ജീവിക്കാനും ആയുസും ആരോഗ്യവും കിട്ടുന്നതിന് വേണ്ടി നല്ല പച്ചക്കറികൾ കഴിക്കുകയെന്നുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുക